ഞാൻ ഒരുപാട് പൂന്തോട്ടത്തിലേക്കുള്ള ചെടികൾ വാങ്ങിച്ചിരുന്നത് മണ്ണൂത്തി അഗ്രിക്കൾച്ചർ ഫാമിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിരിക്കണത് വിവിധതരം ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പൂക്കൾ പൂക്കുന്നതും അല്ലാതെ ഇലകളായിട്ടുള്ള ചെടികളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീട് ചുറ്റും ഞാൻ പൂക്കളിനെകൊണ്ട് അലങ്കരിച്ച് അത്ര ചെടികൾ ഞാൻ വച്ചിട്ടുള്ളത് അത് കൂടാതെ എൻ്റെ ടെറസ്സിൻ്റെ മുകളിലും ഇതിന് ഒരു ഭാഗം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ വരുന്ന എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങള് ഈ ചെടികളെല്ലാം എവടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഞാൻ പറയാറുള്ളത് ഈ സ്ഥലത്ത് നിന്നാണ് വാങ്ങിച്ചതെന്ന് പറയാറുള്ളത് പിന്നെ അത് അല്ലാതെ അവര് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ട ചെടികൾ ഞാൻ കൊടുക്കാറും ഉണ്ട് അതല്ലാതെ ഞാൻ ഫാമിൽ നിന്ന് എവിടെ എവിടെ യാത്ര ചെയ്ത് പോകുകയാണെന്ന് വെച്ചാലും ചെടികൾ വാങ്ങിച്ച് കൊണ്ടു വരണതെന്ന് വെച്ച് ചെടികള് എന്ന് പറഞ്ഞ് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ് എൻ്റെ പെറ്റാണെന്ന് പറയാം ചെടികളുടെ ഞാനെൻ്റെ മക്കളിനെപോലെ അതിനെ ചെടികളിനെ ഞാൻ നോക്കുകയും ചെയ്യും ആ പൂത്ത് നിൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങളുടെ വീട് കാണുമ്പോൾതന്നെ പൂവും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോയെന്ന് എല്ലാവരും പറയാറുണ്ട് പിന്നെ എൻ്റെ ആവശ്യത്തിനുള്ള പൂക്കൾ കിട്ടാറുണ്ട് ഈ പൂക്കൾകൊണ്ട് ഞാൻ അമ്പലത്തികള് അമ്പലങ്ങൾക്ക് കൊടുക്കാറുള്ളതാണ് അതല്ലാതെ ഓണത്തിന് ഞാൻ വിവിധതരം ചെണ്ടുമല്ലികളുടെ ചെണ്ടുമല്ലി അതല്ലാതെ ഡാലിയ വേറെ എന്തൊക്കെ വാടാർമല്ലി അങ്ങനത്തെ ചെടികളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഓണം ആകുമ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അയൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പൂക്കൾ കൊടുക്കാറുണ്ട് അവർക്ക് ഓണത്തിന് മുറ്റത്ത് പൂക്കളം ഇടാനും ഒരുക്കാനും എല്ലാം ചെടികൾക്ക് കൊടുക്കാറുണ്ട് അതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം പൂവിനെന്ന് പറഞ്ഞ് വച്ചാൽ എൻ്റെ വീട്ടിൽ വന്ന് പൂക്കള് വന്ന് പറിച്ച് കൊണ്ട് പോകാറുള്ളതാണ് കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണ് വിവിധ തരം തരം റോസുകളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് എന്തെല്ലാം കളർ റോസുകൾ വേണം എല്ലാ തരം കളർ റോസുകള് അതല്ലാതെ കുറ്റിമുല്ല പിന്നെ എനിക്ക് എവിടെ പോയാലും ചെടികൾ കാണുമ്പോൾ ഞാൻ വാങ്ങിക്കാതെ വരില്ല എല്ലാ ചെടി തരം ചെടികളും ഓർക്കിഡ് ആയാലും ശരി എന്ത് വില കൊടുത്താലും ഞാൻ ചെടികൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ച് കൊണ്ട് വന്ന് വയ്ക്കും അത് മാതിരി അതേ മാതിരി അതിനെ നല്ല പോലെ വെള്ളം ഒഴിച്ച് അതിന് ആവശ്യമുള്ള വളവും എന്തെല്ലാം വേണമോ അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് നല്ല പോലെ നോക്കുകയും ചെയ്യും പിന്നെന്താണ് എൻ്റെ മകനെ നോക്കണതിനെക്കാളും ഞാനെൻ്റെ ചെടികളിനെയാണ് ഞാൻ എൻ്റെ രണ്ട് കണ്ണ് മാതിരി ആണ് ഞാൻ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് എന്നും ഞാൻ ചെടികളോടും ഒക്കെ ദിവസവും പോയി കാണാറുള്ളതാണ് മേലെ പോയാലും ചെടികൾന്ന് പറഞ്ഞാൽ ജീവനാണ് എൻ്റെ ചെടിയല്ലാതെ നമുക്ക് എവിടെ പോയാലും ചെടി ഇല്ലാതെ ഞാൻ തിരിച്ച് വരില്ല വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും ചെടി വാങ്ങിക്കാതെ ഒരു ദിവസം എവിടെ വാങ്ങിച്ചിട്ട് എൻ്റെ ഇതുള്ളു നല്ല പോലെ ഞാൻ പരിപാലിച്ച് ആ ചെടികളിനെ കൊണ്ടുപോകാറുള്ളതാണ്